പുസ്തകങ്ങൾക്ക് പുറമെ ഞാൻ മാസികകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാസികകൾ ഒരുപാട് കവിതകളും കഥകളും ഓരോ എഴുത്തുകാരും എഴുതാറുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ജീവിത പാഠങ്ങളും അതിലൂടെ നമുക്ക് മനസിലാക്കാം മാസികകൾ ഓരോ നോവലുകൾ വരാറുണ്ട് പലരും എഴുതിയ പല കിനാവുകൾ എന്നൊക്കെ പറയുന്നത് പോലെ പല പല നോവലുകളാണ് അതിനകത്ത് പ്രസിദ്ധീകരിക്കാറുള്ളത് ഓരോ വട്ടവും വായിക്കുമ്പഴും അതിൻ്റ അടുത്ത ഭാഗം കാത്തിരിയ്ക്കയാണ് നമ്മൾ അതിനകത്തെ സ്നേഹ ബന്ധങ്ങളെയും സുഹൃത്ത് ബന്ധങ്ങളെയും ബന്ധുമിത്രാദികളുടേ പല കഥകളാണ് പറഞ്ഞ് വരുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തോടൊര് കൗതകത്തോട് നമ്മളിരിക്കാറുണ്ട് ടീവിയിൽ സീരിയല് കാണുന്നത് പോലെയാണ് നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ടതാണല്ലൊ സീരിയൽ അതുപോലെയാണ് നമുക്ക് നോവല് വായിക്കുമ്പോൾ മാസികകളിൽ വരുന്ന നോവലുകള് വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് അടുത്ത ഭാഗം എന്തായിരിക്കും ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരേയോരോ സംശയങ്ങളോട് കൂടിയായിരിക്കും നമ്മളതിനെ കാത്തിരിക്കുന്നത് അതുപോലെ എനിക്കും ഇഷ്ടമാണ് മാസികകള് വായിക്കാനും അതിലെ കാര്യങ്ങളിങ്ങനെ ഓർത്ത് ഓർത്ത് കാത്തിരിക്കാനുമായിട്ട് ഒരുപാടിഷ്ടമാണ്